പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും ഒക്കെ നിയമ വ്യവസ്ഥയിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഗവൺമെൻറ് അതായത് ഗവൺമെൻറ് ഗവൺമെന്റിൻ്റെ റെസ്പോൺസിബിലിറ്റി മര്യാദയ്ക്ക് ചെയ്യുക കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു രണ്ട് മാസം മൂന്ന് മാസം പിന്നെ ജയിലിൽ തടവ് ഇതാക്കിയിട്ട് അവരെ ജാമ്യത്തിൽ ഇറക്കും പിന്നെ നമ്മളെ അവിടെ പുറം രാജ്യങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഉള്ളതിലൊക്കെ അതായത് പീഡനം ഒക്കെ വളരെ കുറവാണ് കാരണം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വധ ശിക്ഷ തന്നെ ആയിരിക്കും പീഡനത്തിനൊക്കെ കിട്ടുക ഇവിടെ പക്ഷെ അങ്ങനെ അല്ല നേരേ തിരിച്ചാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് പീഡനം കാര്യങ്ങളൊക്കെ കൂടി കൂടി വരികയാണ് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും പീഡിപ്പിച്ച് കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് എറങ്ങും അപ്പം എല്ലാരും ആ ഒരു മൈൻഡിൽ ആയിരിക്കും നമുക്ക് വലിയ പ്രശ്നം ഒന്നും വരുന്നില്ല എന്നുള്ള മൈൻഡിലായിരിക്കും കൂടുതൽ ആൾക്കാരും അപ്പം മര്യാദക്ക് നല്ലൊരു ശിക്ഷ നടപ്പിലാകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ വളരെ അധികം കുറക്കും കാരണം പിന്നെ സമൂഹത്തിൽ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും മെച്ചപ്പെടുത്തേണ്ടത് പൗരന്മാർക്കിടയിൽ